ആ പച്ചക്കറി കടയാണോ ആ എനിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വേണ്ടീനു പിന്നെ എങ്ങനത്തെ സാ ഇന്നത്തെ സാധങ്ങളൊക്കെ എത്തീട്ടുണ്ടോ ഇത് എല്ലാ സാധനോം ഉണ്ടോ

ആ എനിക്കൊന്ന് വൈകുന്നേരത്തേക്ക് നോക്കീന്നെ ഒരു അരക്കിലൊം ക്യാരറ്റ് ഒരു കിലോ സവാള ആ അതെ ആ വെലയൊക്കെ ഭയങ്കര നില്പില്ലാതെ കുറവന്നെയാണോ അതോ കൂടീട്ടുണ്ടോ

ആ എന്നാൽ എനിക്ക് ക്യാരറ്റ് വേണം ഒരരക്കിലോ സവാള ഒരു കിലോ തക്കാളി അര ക്കിലോ പച്ചമുളക് ഇരുന്നൂറ് പിന്നെ ചെറിയുള്ളി അഞ്ഞൂറ് അര ക്കിലോ പിന്നെ വെളുത്തുള്ളി ആ അര കിലോ മതി പിന്നെ പിന്നേ വെളുത്തുള്ളി ഇരുന്നൂറ് വെളുത്തുള്ളിക്ക് കൂ കൂടിട്ടൊന്നും ഇല്ലല്ലോ ആ എന്നാൽ ഒരു എന്നാഒരെ ഇരുന്നൂറ് മതി ഞാനിന്ന് വൈകുന്നേരത്തേക്കുള്ള സ പരിപാടിക്കുള്ള സാധനങ്ങളായിരുന്നു അതെങ്ങനെ എങ്ങനെ ഇങ്ങോട്ടൊന്നെത്തിക്കുവോ ഇവിടന്ന് ആ കൊടത്ത് വിടുവാണെങ്കിൽ ഏറെ സൗകര്യമായിരുന്നു ആ ആ അതേപോലെ പിന്നെ സ്ഥലം തോട്ടക്കരയാണ്

അ ആ ആയി ഇല്ലില്ല വേറൊന്നും ഇല്ല അത് മതി ആ അ അ ആ ഒക്കെയെന്നാൽ ശരി